ഞാൻ അശ്വതിയുടെ ക്ലാസ് ടീച്ചർ ആണ് അശ്വതിയുടെ അമ്മയല്ലേ ആ ഓക്കെ അശ്വതിയുടെ അമ്മയല്ലേ അശ്വതിക്ക് കഴിഞ്ഞ ഒന്നുരണ്ട് ടെസ്റ്റിലൊക്കെ മാർക്ക് കുറവാണ് അപ്പോൾ അതിനൊരു മൂന്ന് മണിക്ക് ശേഷം ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഒക്കെയൊന്ന് അവളെ ഒന്ന് സ്റ്റേ ബാക്ക് ചെയ്യാൻ ഒന്ന് സമ്മതിക്കുമോ കാരണം അവൾ ഒന്നുകൂടി ക്ലാസ്സിൽ ഒന്ന് ലൈക് എല്ലാ കൂട്ടത്തിലിരുന്ന് അവൾ പഠിക്കുന്നില്ല അപ്പോൾ ഒരു ഒറ്റയ്ക്കിരുത്തി ആണെങ്കിൽ അവളെ ഒന്ന് പഠിപ്പിക്കാമായിരുന്നു അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമായ കാരണമാണ് ഞങ്ങൾ ഇപ്പോൾ പറഞ്ഞത് ഒന്ന് നിർത്താൻ പറ്റുമോ എന്ന് ഞങ്ങൾക്കിപ്പോൾ എല്ലാവരുടേയും കൂട്ടത്തിൽ നിന്നവളെ മാത്രം ശ്രദ്ധിക്കാൻ പറ്റില്ല അതുകൊണ്ട് അവൾക്ക് മാത്രമായിട്ട് കുറച്ചുസമയം ഞങ്ങൾ നിൽക്കാമെന്നുള്ള രീതിയിൽ നിങ്ങൾ സമ്മതിക്കുവാണെങ്കിൽ അവൾ നിൽക്കുമല്ലോ അപ്പോൾ അങ്ങനെ എനിക്ക് അവളെ കുറച്ചുകൂടി ഒന്ന് കെയർ ചെയ്യാൻ പറ്റുമല്ലോ ഹാ വീട് പിന്നെ അടുത്താണല്ലോ അധികം ദൂരമൊന്നുമില്ലല്ലോ അപ്പോൾ പിന്നെ നിർത്തണോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ നിങ്ങളുടെ കുട്ടിയുടെ ഭാവി നിങ്ങളുടെ കയ്യിലാണല്ലോ നിങ്ങൾ ഇങ്ങനെ വിട്ടുവീഴ്ച ചെയ്യാണ്ടിരുന്നാൽ എങ്ങനെയാണ് ശരിയാവുക അത് ഇന്നുതന്നെ ലൈക് ഇന്നാണ് ടെസ്റ്റിൻറെ റിസൾട്ട് വന്നത് അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴാണ് ഇന്ന് വിളിക്കാമെന്ന് പറഞ്ഞത് ഇനിയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ മുൻകൂട്ടി പറയും ഇന്ന് ഒരുവട്ടം നിർത്തണതിന് കാരണം മാത്സ് ടീച്ചർ നാളെത്തൊട്ട് ലീവ് ആയിരിക്കും അതുകൊണ്ടാണ് ഇന്ന് നിർത്താൻ പറഞ്ഞത് ലൈക് ലാംഗ്വേജ് സബ്ജക്റ്റ് ഒന്നും കുഴപ്പമില്ല പക്ഷേ മാത്സ് ഒക്കെ വരുമ്പം മാത്സ് ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ വരുമ്പോഴാണ് പിന്നെയും കുറവ് കാണിക്കുന്നത് ആ അല്ല ഫിസിക്സ് കെമിസ്ട്രി സയൻസ് സബ്ജക്റ്റുകളും കുറവാണ് ലാംഗ്വേജ് ഒന്നും കുഴപ്പമില്ല അതെ അതെ അത് അറിയാൻ പാടില്ല ചിലപ്പോൾ കൂട്ടുകെട്ട് ആയിരിക്കാം എന്തുകൊണ്ടാണെന്നറിയുന്നില്ല ഇപ്പോൾ ഭയങ്കര ഉഴപ്പാണ് ലൈക് ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല മറ്റു പിള്ളേരുമായിട്ട് മറ്റുപിള്ളേരേയും ശ്രദ്ധിക്കാൻ സമ്മതിക്കാത്ത അവസ്ഥയാണിപ്പോൾ ചിലപ്പോൾ മുൻപ് ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ പിള്ളേർ ക്ലാസ് കൂടും തോറും അവരുടെ കാരക്ടറിലും അവരുടെ മൈൻഡ്സെറ്റിലുമൊക്കെ വ്യത്യാസം വരും അപ്പോൾ അതിനനുസരിച്ചു അവർ ഉഴപ്പാനും ചാൻസസ് ഉണ്ട് മുൻപ് പഠിച്ചെന്നുകരുതി ഇപ്പോഴും പഠിക്കാനാ പഠിക്കാനും ചാൻസ് കുറവാണ് എല്ലാവരും ഒരേ ലെവലിൽ തന്നെ പോവണമെന്നില്ലല്ലോ ചിലപ്പോൾ കൂടും കുറയുവൊക്കെ ചെയ്യാം പുറകേ പോയപ്പോൾ ഒന്ന് സ്റ്റേ ബാക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ കുറച്ചുകൂടെ നന്നായി നമുക്ക് ഒന്നുകൂടെ ഒന്ന് ആളെ മേക് മേക്കപ്പ് ചെയ്യാൻ പറ്റും ആ മൂന്നര മൂന്നരയ്ക്കാണ് ക്ലാസ് കഴിയുക ഒരു നാല് നാലര നാലുമണിയൊക്കെ ആകുമ്പോഴേക്കും ലൈക് ഒന്ന് എത്തിയാൽ മതി ആ ഓക്കെ ഓക്കെ ഓക്കെ